രത്തൻ ടാറ്റാ എന്നു പറയുന്നൊരു വ്യവസായിയുണ്ട് അദ്ദേഹമാണെങ്കിൽ അവരുടെ വർക്ക് ഫീൽഡുകളിലൊക്കെ അങ്ങേരുടെ പ്രവർത്തനം ആകുന്നതിനു മുമ്പ് തന്നെ ഒത്തി ഒത്തിരി താരതമ്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയുള്ള സമയത്ത് പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ തൊഴിലാളികളും മുതലാളികളും അങ്ങനെയുള്ളൊരു അന്തരം ഒത്തിരി അന്തര വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നപ്പം അത്യാവശ്യം ഭക്ഷണം പോലും കൊടുക്കുമ്പോൾ തൊഴിലാളികൾക്കു വേറൊരു സ്ഥലത്തും അവരുടെ മുതലാളികൾ വേറൊരു സ്ഥലം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നപ്പം രത്തൻ ടാറ്റ ഇതു കണ്ടു അപ്പം പുള്ളി നോക്കുമ്പോൾ ഇത് ഒരു ഷെഡ്ഡിൻ്റെ മറയ പോലെ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു തൊഴിലാളി പാവപ്പെട്ട തൊഴിലാളികൾക്ക് പണി ചെയ്തു നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടിരുന്നത് അത് പുള്ളിയുടെ സമയത്ത് പുള്ളിയത് നിർത്തലാക്കി ഷെഡ്ഡുവരെയും പൊളിച്ചു കളഞ്ഞെന്നാണ് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒക്കെയുള്ളൊരു വ്യവസായിയായിരുന്നു പക്ഷേ എന്നാൽ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു സമൂഹത്തിലും എല്ലാ ജീവിതനിലകളിലും പുള്ളി ഒത്തിരി ഒത്തിരി പ്രയോജനപ്പെടുത്തിയ ഒരു മനുഷ്യനും അല്ല അങ്ങേരുടെ സമ്പത്താണെങ്കിൽത്തന്നെയും ഒത്തിരി പാവങ്ങൾക്കു വേണ്ടി ചിലവഴിച്ച് ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തെയാണ് പെട്ടെന്നെൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെയാണെനിക്കിപ്പോൾ ഓർമ്മ വന്നത്